ഹലോ ചേച്ചി ഞാൻ തിരുവനന്തപുരത്ത് ആദ്യം ആയിട്ടാണ് വരുന്നത് അപ്പം ഞാൻ ഒരു ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെ വരാൻ നോക്കും അപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് സ്ഥലളൊന്നും അധികം അറിയത്തില്ല അപ്പം എനിക്ക് അവിടെ കുറച്ച് ഒക്കെ ഒന്ന് പറഞ്ഞു തരണം

ഞങ്ങളൊരു അഞ്ച് പേരുണ്ട് ട്രെയിനിൽ ആയിരിക്കും വരുന്നത് അപ്പോൾ ആരെങ്കിലും പിക്ക് ചെയ്യാനായിട്ട് വരുമോ അഞ്ച് പേരാണ് ആ അറേഞ്ച് ചെയ്തുകൊള്ളൂ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി റൂമൊക്കെ പ്രൊവൈഡ് ചെയ്യണം ആ ആദ്യം ബീച്ചിലോട്ട് പോവാം ആണോ ആ ആ താൽപ്പര്യം ഉണ്ട് ഓക്കെ പിന്നെ രണ്ടു പേര് വെജിറ്റേറിയനാണ് അപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുമോ ഞങ്ങൾക്ക് ആ കുട്ടികൾക്ക് കളിക്കാൻ പാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ ആ ഓക്കെ